ആ പറയൂ സർ ആ ഓക്കെ സർ എവിടെ നിന്നാണ് വിളിക്കുന്നത് ആ ബാംഗ്ലൂരിൽ നിന്നാണോ അപ്പോൾ എത്ര ദിവസത്തെ പാക്കേജാണ് നോക്കുന്നത് മൂന്നാർ മാത്രമേ ഉള്ളൂ ഇടുക്കി പോകണോ ആ എത്ര പേരുണ്ട് ആ ഓക്കെ അപ്പം അക്കൊമൊഡേഷനൊക്കെ വരുന്നത് ഇവിടെത്തന്നെയാണ് ഞങ്ങളെ ലൊക്കേഷനിൽ തന്നെയാണ് അക്കൊമൊഡേഷൻ വരുന്നത് അപ്പം ഡേ ഒരു തൗസൻ്റൊക്കെയാവും ഒരാൾക്ക് ആ തൗസൻ്റാവും ഇപ്പോൾ ഫാമിലിയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം കാരണം രണ്ട് പേർക്കും കൂടി ഒരു ബെഡ് റൂം ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇപ്പം ടോട്ടലിപ്പം ആ ഫുഡടക്കം ആ നിങ്ങളുടെ അക്കൊമൊഡേഷനടക്കം ഫുഡും അക്കോമഡേഷനും കൂടിയാണ് തൗസൻ്റ് വരുന്നത് ഒരാൾക്ക് ആ ഫാമിലിയും പിന്നേ നോൺവെജ് ഒക്കെ ആവുമ്പോൾ കുറച്ചുകൂടി എമൗണ്ട് കൂടുന്നുള്ളൂ അങ്ങനെ വച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ചിക്കൻ അങ്ങനത്തെ അൽഫാം മന്തി അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെയാണെങ്കിൽ കുറച്ചുകൂടി പൈസ കൂടും അത്രയേ ഉള്ളൂ ആ പിന്നേ വല്ല യൂബർ അങ്ങനത്തെ വേണമെങ്കിൽ അതവർക്ക് എക്സ്ട്രാ പേയ്മെൻ്റ് ചെയ്യണം അല്ലാണ്ട് റെൻ്റൊക്കെ ഉണ്ടിവിടെ ടൂ വീലറുണ്ട് അതുപോലെ ഫോർ വീലറുണ്ട് ഏത് വണ്ടിയാണ് വച്ച് കയിഞ്ഞാൽ അതിൻ്റെ റെൻ്റും അങ്ങനെ വരുന്നുണ്ട് റെൻ്റ് വണ്ടി വരുന്നുണ്ട് വേറെ ആ ഞങ്ങളുടെ തന്നെ സെപ്പറേറ്റ് റെൻ്റ് അത് സെപ്പറേറ്റ് റെൻ്റാണ് ടൂ വീലറാകുമ്പം മണിക്കൂറല്ല ഈ വൺ വൺ ഡേയ്ക്കായിരിക്കും വരിക ആ അതിപ്പോൾ തൗസൻ്റ് തൗസൻ്റ് ഫൈവ് ഹൺഡ്രഡ് തൊട്ടിട്ടുണ്ട് അപ്പം കുറേ വണ്ടിയുണ്ട് ഓഫ്റോഡ് പോകുന്ന വണ്ടിയുണ്ട് അല്ലാത്ത നോർമൽ വണ്ടിയും ഉണ്ട്

ഇപ്പം ഫാമിലി ഒരു നാല് അഞ്ചു റൂം മതിയാവില്ലല്ലോ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ അപ്പം വരുന്നതിനൊരു തലേദിവസം വിളിച്ചാൽമതി എന്നിട്ട് എത്ര റൂം വേണം എന്ന് പറഞ്ഞാൽമതി അപ്പം അവൈലബിൾസായിട്ടുള്ള റൂമിൻ്റെ നമ്പരൊക്കെ പറഞ്ഞുതരാം ആ പിന്നെ ക്യാമ്പ്ഫയർ അങ്ങനത്തെ സംഭവം ഒക്കെയുണ്ട് ആ പാർട്ടിയും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ എല്ലാം ഞങ്ങളുടെ തന്നെയാണ് ആ അപ്പം സാറ് കോൺടാക്ട് ചെയ്താൽമതി നേരത്തെ വിളിച്ചിരുന്നു പറഞ്ഞാൽമതി സാറിൻ്റെ പേര് ഹലോ സാറിൻ്റെ പേരെന്തായിരുന്നു ആ ആ ഓക്കെ ആ എന്നാൽ കോൺടാക്ട് ചെയ്താൽ തലേദിവസം കോൺടാക്ട് ചെയ്താൽമതി കേട്ടോ ആ മതി മതി